നമ്മുടെ വീട്ടുമുറ്റത്തും പൂന്തോട്ടത്തിലുമൊക്കെ പക്ഷികളെ ആകർഷിക്കാൻ വേണ്ടി തേൻ കിട്ടുന്ന പൂക്കളൊക്കെ വളർത്തുക അതുപോലെ തേന് നമുക്ക് കിട്ടുന്ന പൂക്കളുണ്ട് ഒരു കോളാംബി പൂവെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൂക്കളുണ്ട് ആ പൂക്കളൊക്കെ നട്ടുവളർത്തിയാല് തേൻ കുടിക്കാനായിട്ട് ഒരുപാട് അടയ്ക്കാ കുരുവികളെപ്പോലെ കുഞ്ഞി കുഞ്ഞി ചെറിയ കൊക്ക് വലിപ്പമുള്ള പക്ഷികളെയൊക്കെ നമുക്ക് ആകർഷിക്കാൻ പറ്റും അതുപോലെതന്നെ വീട്ടുമുറ്റത്ത് അല്ലെങ്കില് മതിലിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ചെടികളിലോ പിന്നെ ഒരു ചട്ടിയില് വെള്ളം തൂക്കിയിടുക അല്ലെങ്കില് ഇപ്പോള് ഒരു മതിലിൻ്റെ പുറത്ത് കുറച്ച് ചോറ് കറിയൊഴിച്ച് ഇതാക്കിയിട്ട് അത് വെയ്ക്കുക അപ്പം കാക്കയോ അതുപോലെ പക്ഷികളൊക്കെ വന്ന് കൊത്തി കൊത്തി തിന്നുകൊള്ളും അതുപോലെ അരിമണി വിതറിയിടുക മുറ്റത്ത് അരിമണി വിതറിയാല് ഒരുപാട് പക്ഷികളൊക്കെ വരും ഇങ്ങനെ നമുക്ക് പക്ഷികളെ ആകർഷിക്കാം അതുപോലെതന്നെ ഞാന് ഞാന് എറണാകുളത്ത് കുറച്ച് കുറച്ചു ദിവസമുള്ളപ്പോള് അവിടെ താഴെ ഒരു മതിലിൻ്റെ പുറത്ത് ചോറൊക്കെ ഇട്ടുകൊടുക്കുന്നതാണ് അപ്പോള് കാക്കയും അതുപോലെ പക്ഷികളുമൊക്കെ വന്നു കുടിക്കാറുണ്ട്

അതുകൊണ്ട് അന്നെ അവർ അവരുടെ ഒരു വീട്ടിൽ തന്നെ പക്ഷികളെ ഒരുപാട് നമുക്ക് കാണാനും അതുപോലെതന്നെ വന്നുപോകുകയും ചെയ്യും അത് നമുക്കും ഒരു കാണുമ്പോഴൊരു ഇഷ്ടമായിരിക്കും എൻ്റെ വീട്ടിലിപ്പോള് ഒരു ചെറിയൊരു ചെടിയുണ്ട് ഒരു ഒരു ഇലകളൊക്കെ കൂടി നിന്നിട്ടൊരു ചെടി അവിടെയൊരു പക്ഷി കൂടൊക്കെ ഓരോ ദിവസവും പക്ഷി വന്നിട്ട് പക്ഷിക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ഓരോ ഓരോ ദിവസം വരുമ്പോള് ഓരോ കൊള്ളി പോലെയുള്ള സാധനങ്ങള് കൊണ്ടുവന്ന് ഒരു പകുതിവരെ കൂടുണ്ടാക്കി വെച്ചതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ നല്ല രസമാണല്ലോ കാണാന്